പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഒന്ന് പതിനേഴ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരം ഇരുപത്തിയെട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുവത്തിരണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്